ഇന്ത്യൻ മാധ്യമങ്ങളിൽ നല്ല നല്ലവയുമുണ്ട് ചീത്തതുവുണ്ട് എന്നുവെച്ചാൽ ഞാനുദ്ദേശിച്ചത് മുഖം നോക്കാതെ വ്യക്തികളെ നോക്കാത വ്യക്തികളുടെ സ്ഥാനങ്ങൾ നോക്കാതെ നല്ല രീതിയിൽത്തന്നെ ന്യൂസുകൾ ജനങ്ങളിലേക്കെത്തിക്കുന്ന മാധ്യമങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നിരുന്നാൽപ്പോലും നല്ലവയില് ചീത്തയുമുണ്ട് മുഖങ്ങൾ നോക്കി വ്യക്തികളെ നോക്കി താൽപ്പര്യങ്ങൾ നോക്കി ന്യൂസുകൾ പബ്ലിഷ് ചെയ്യുന്ന മാധ്യമങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ഏതൊരു ന്യൂസെടുത്താലും ഇപ്പോള് രണ്ട് ന്യൂസ് ചാനൽസെടുത്ത് നമ്മൾ കംപയര് ചെയ്യുകയാണെങ്കില് ഒരു കുഞ്ഞ്കുഞ്ഞിക്കാര്യങ്ങളിപ്പോലും വ്യത്യാസങ്ങൾ നമുക്കതിൽ കാണാമ്പറ്റും ഒരു ന്യൂസ് ചാനലുകൾ റിപ്പോട്ടെയ്യുന്നതുവായിട്ടൊരു ബന്ധവുമില്ലാത്ത കാരുത്തുവായിട്ടന്നെ ബന്ധപ്പെട്ട കാര്യമായിരിക്കും മറ്റൊരു ന്യൂസ് ചാനല് റിപ്പോട്ടെയ്യുന്നെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കില് നല്ല പരിമിതമാണ് നമ്മുടെ ഇന്ത്യൻ ന്യൂസ് ചാനൽ എന്നിരുന്നാൽത്തന്നെയും നല്ലതും നമുക്ക് ചുറ്റും അവയിൽ കാണാമ്പറ്റും നമക്ക് ഇപ്പോള് ഈ കേരളത്തിൽ പ്രശസ്തമായ ചില മാദ്ധ്യമങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയാൽ മലയാള മനോരമ ഏഷ്യാനെറ്റ് ന്യൂസ് ദീപിക ഇങ്ങനെയൊക്കെ നോക്കുകയാണങ്കിൽ ദീപിക പറയുകയാണങ്കിൽ സത്യസന്ധമായി മുഖം നോക്കാതെ വ്യക്തി താൽപ്പര്യങ്ങളില്ലാതെ ഒരൂ ഒരു ന്യൂസ് ചാനലാണ് അല്ലെങ്കിലൊരു മാദ്ധ്യമ ഒരു പത്രമാണ് ദീപികാന്ന് പറയുന്നത് അതിൽ പരസ്യങ്ങൾ കുറവാണ് ആൾക്കാരെ നോക്കുന്നില്ല ഇപ്പോള് പിന്നെ പരസ്യം കുറവാകുന്നത് കൊണ്ട് തന്നെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോള് ദീപിക നല്ലൊരു പത്രമാണ് പക്ഷെ മറ്റ് പത്രങ്ങളെ അപേക്ഷിച്ച് കമ്പയെര് ചെയ്യുകയാണെങ്കിൽ ദീപികയിൽ വരുന്ന ന്യൂസുകൾ ചുരുക്കമാണ്